ഞങ്ങളുടെ ഈ പള്ളിയിൽ ക്രിസ്മസ് ഈസ്റ്റർ ഔസേപ്പ് പിതാവിൻ്റെ തിരുന്നാൾ അങ്ങനെ എല്ലാം പെരുന്നാളുകളും തിരുന്നാളുകളും ആഘോഷിക്കാറുണ്ട് അതിൽ പ്രധാനമാണ് മാർച്ച് പത്തൊമ്പതിന് നടത്തുന്ന മിശിഹ ഔസേപ്പ് പിതാവിൻ്റെ മരണ തിരുന്നാൾ അന്ന് ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ സഹകരിച്ചു ഇവിടെ ഒരു സദ്യ നടത്താൻ കൂട്ട് നേർച്ച നടത്താറുണ്ട് അതിൽ എല്ലാ ഇടവക അംഗങ്ങളും പങ്കെടുക്കുക പങ്കെടുക്കാറുണ്ട് ഇടവകാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും സഹകരിച്ചാണ് ഞങ്ങൾ ഈ ദിവസത്തെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടാക്കുന്ന ഈ ഒരു ഭക്ഷണത്തിന് വളരെ അധികം രുചികരമായ സദ്യയാണ് ആ ദിവസം നല്കുന്നത് ചോറും പലതരം കറികളും പായസവും ഒക്കെയായിട്ട് വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ അതിൽ നടത്തുകയായിരുന്നു അവിടെ നാട്ടുകാർ മറ്റ് വിശ്വാസികളും ആ നേർച്ചയിൽ വന്നു പങ്കെടുക്കുന്നു അവിയൽ സാമ്പാർ തോരൻ പപ്പടം പായസം അങ്ങനെ എല്ലാ വിഭവങ്ങളും അതിൽ ഉണ്ട് നേർച്ചയായി പായസം പായ്കറ്റുകളാക്കി വേണ്ടിയവർക്ക് നൽകുകയും ചെയ്യുന്നു പിന്നെ ഉള്ളത് ഈസ്റ്ററിനോട് അനുബന്ധിച്ച് ഈസ്റ്ററിൻ്റെ അവസാന ശനിയാഴ്ച നടത്തുന്ന കൊഴുക്കട്ട തിരുന്നാളാണ് അതിന് ഈ ഇടവകയിലുള്ള എല്ലാ വീടുകളിലും കൊഴുക്കട്ട ഉണ്ടാക്കി അവർ ആ തിരുന്നാൾ ആഘോഷിക്കുന്നു ഈസ്റ്ററിന് പ്രധാനമായും ഉണ്ടാക്കുന്ന മറ്റൊരു വിഭവമാണ് പിടിയും കോഴിക്കറിയും ഇവ ഈ ഇത് എല്ലാ വീടുകളിലും തന്നെ ഇത് ഉണ്ടാക്കാറുണ്ട് പിള്ളാർകൊക്കെ വളരെ ഇഷ്ടമായ ഒരു ഭക്ഷണ വിഭവം കൂടെ ആണ് ഇത് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഈ വിഭവം ഈ കുറേ കാലങ്ങൾ ഈ അടുത്ത കുറേ കാലങ്ങളിലായി പുതിയ തലമുറയിലെ പിള്ളേർ ആസ്വാദ്യമായി ഉണ്ടാക്കിക്കൊണ്ട് ആ പഴമയിലേക്ക് ഒരു തിരിച്ച് പോക്കു കൂടെ ആണ് ഇതിലൂടെ നടത്തുന്നത് ഒരോ ആ ഉത്സവം ഉത്സവങ്ങളും അതിൻ്റെതായ തനിമയായി ആഘോഷിച്ച് ഇതിൻ്റെ പാരമ്പര്യ രുചികളിലേക്ക് ഭക്ഷണത്തിലേക്ക് പോകുന്നു എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഈ അടുത്ത കാലങ്ങളിലായി ഞങ്ങളുടെ ഇടവകയിൽ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഓ ബിരിയാണി വച്ച് എല്ലാ ഇടവക എല്ലാ ഇടവകയിലെ ആൾക്കാർക്കും പുറത്തുള്ളെ ആൾക്കാർക്കും മേടിക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എല്ലാവർക്കും ഒരേ ഒരേ പോലെ ഭക്ഷണം കഴിക്കുവാനായിട്ടും ആഘോഷങ്ങളിൽ പങ്ക് ചേർക്കാനുമായിട്ട് ഞങ്ങൾ ശ്രമിച്ചു വരുന്നു